ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഏഴ്